ഗ്രാമീണ മേഘലയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ സർക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സർക്കാർ ഒരുപാട് ചെയ്യുന്നുണ്ട് അതായത് പുസ്തകങ്ങൾ ഫ്രീ കൊടുക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് അതായത് പത്ത് വരെ ഉള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് ആയിരം രൂപ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട് സർക്കാരൊന്നും ചെയ്യുന്നില്ല വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചില കുട്ടികളെ അതായത് സ്കൂളിൽ അയക്കാത്തതിൻ്റെ കാരണങ്ങളും ആ അതായത് ചില കുട്ടികളെയൊക്കെ പണിക്കൊക്കെ വിടും അതായത് പാവപ്പെട്ട വീട്ടിലുള്ള അതായത് നമ്മളറിയാത്ത രീതിയിൽ പണിക്ക് വിടും അങ്ങനെത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അതായത് കൂടുതലും ഈ എസ് ടി കുട്ടികൾ ആദിവാസി കുട്ടികൾ പഠിക്കാൻ മടിയുള്ള കുട്ടികൾ ഒരുപാടുണ്ടാവും ആ മടിയുള്ള കുട്ടികളെയും പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മടിയുള്ള കുട്ടികളും വരാതിരിക്കും അപ്പോൾ ചില ചിലരെ ഒക്കെ ടീച്ചർമാരൊക്കെ വീട്ടിലൊക്കെ പിടിച്ചുകൊണ്ട് കൂട്ടികൊണ്ടുപോയിട്ട് സ്കൂളിൽ കൊണ്ട് ചേർക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്